ആ അതെ ഇത് ഇത് നല്ല ചാർജറാട്ടോ ഇത് സാധാ ചാർജർ പോലെയല്ല ഇച്ചിരി വൈറ്റാണ് വൈ ഭയങ്കര ഷൈനിങ് ഉണ്ട് അതുപോലെതന്നെ ഫ്ലെക്സിബിളാണ് ലോങ്ങാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചാർജ് കേറുന്നുണ്ട് പക്ഷേ നമുക്ക് ചാർജ് ഇപ്പോൽ ട്വൻ്റിൻത്ത് എറങ്ങി കഴിയുന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചാർജൊരു അരമണിക്കൂരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെയൊരു പകുതി ഭാഗം എത്തിയിട്ടുണ്ടാവും പെട്ടെന്ന് കേറുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ചൂടാവുന്നില്ല നമുക്ക് കുറച്ചു നേരം വയ്ക്കാൻ പ കുറച്ചുനേരം വെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചൂടാകുന്നില്ല നമുക്ക് സേഫാണത് അതെ നമുക്ക് സി ടൈപ്പാണ് സി ടൈപ്പാണ് അതേ അതെ പിന്നേ സാധാ ചാർജർ പോലെ ഇതിപ്പോൾ വളച്ച് വെച്ചാലും ചില ചാർജറുണ്ട് നമുക്ക് വളച്ച് വെച്ചാലത് ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലുള്ള കേബിൾ കാര്യങ്ങൾ പുറത്ത് വരുക നമുക്കത് പെട്ടെന്ന് ഷോക്ക് അങ്ങനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇത് അങ്ങനത്തുള്ളതല്ല ഇത് ഭയങ്കര ഫ്ലക്സിബിളാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചാർജ് ചെയ്യാം അതേ പിന്നതുപോലെ തന്നെ ലോങ്ങ് സാധ ചില ചാർജറുണ്ടാവും നമുക്ക് ഇത്ര ലോങ്ങേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്ലഗ്ഗിൽ കുത്തി കഴിഞ്ഞേച്ച് കഴിഞ്ഞ നമുക്കത് ഇത്ര നമുക്ക് ചിലപ്പോൾ അത് പ്ലഗ്ഗിൽ വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചിലവർ ചെയറിലെ വയ്ക്കുക ചെയറിൽ വയ്ക്കുന്നവരുണ്ട് അവർ ചിലപ്പോൾ ചെയറിൽ കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല ചില ചാർജർ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് പെട്ടെന്ന് കേറുല്ല ചാർജർ പെട്ടെന്ന് അത് പെട്ടെന്ന് ഡാമേജ് ആവും ചെയ്യും പക്ഷേ ഇത് അങ്ങനല്ല ഇത് ഭയങ്കര ലോങ്ങാണ് അതുപോലെതന്നെ ലോങ്ങായതുകൊണ്ട് നമുക്കിത് എവിടെ വേണേലും വയ്ക്കാം നമുക്കിപ്പോൾ കുറച്ച് കുറച്ച് നമ്മുടെ ചുമരിൽ കുറച്ചു മുകളിലുള്ള സ്വിച്ചിലാണെങ്കിലും പ്ലഗ്ഗിലാണെങ്കിലും നമുക്കിത് വയ്ക്കാം ഓക്കെയാണ് സേഫാണ് പിന്നെ പെട്ടെന്ന് കേറുന്നുണ്ട് ചാർജ് ചാർജർ ആ പെട്ടെന്ന് കേറും അത് തന്നെയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പെട്ടെന്ന് കേറും അതുപോലെ തന്നെ ലോങ്ങാണ് പിന്നെ വൈറ്റ് ഷൈനിങ്ങ് ഉള്ളോണ്ട് കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ടൊക്കെ ഓക്കെയാണ് ഓക്കെ